നമ്മുടെ പ്രദേശത്ത് നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യത്തിൻ്റെ പ്രധാനമായിട്ടും പ്ല പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും വീടുകളിൽ നിന്നാണ് ഈ ഒരു മാലിന്യങ്ങൾ വരുന്നത് മേജർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് വീടുകളാണ് അപ്പോൾ ഈ മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ വീടുകളിലുള്ള മീനുകളുടെ ചിക്കൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ആയിട്ട് ആഹാരം ആയിട്ട് റിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റുകളാവും അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ എന്ത് ചെയ്യുന്നു നിക്ഷേപിക്കുന്നു കൂടാതെ തന്നെ പ്ലാസ്റ്റിക്കും ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് കുപ്പിച്ചില്ലുകളും ഉണ്ട് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ യൂസ് ചെയ്തിരുന്ന ഡൈപ്പർ സംസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ അതും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കിയിട്ട് കൊണ്ട് വന്ന് സമീ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ ഉപേക്ഷിക്കുകയാണ് പതിവ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുമ്പം ഇവർ പ്ലാസ്റ്റിക് മാത്രമല്ല കൂടെ കുപ്പിച്ചില്ലുകൾ ഉപേക്ഷിക്കാറുണ്ട് ചിലർ എന്തെങ്കിലും ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും തറയിൽ വീലോ വീണ് ഉടഞ്ഞതിന് ശേഷം ഇവർ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോളിതീൻ ബാഗിനകത്ത് ഇട്ടിട്ട് അതിനെ ടൈ ചെയ്ത് പിന്നെ കൊണ്ടുവന്ന് ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് പതിവ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ തന്നെ എന്തെയ്യു എന്തുണ്ട് ഒരുപാട് നായ്ക്കളുണ്ട് അവർ ഇങ്ങനെയുള്ള തെരുവ് നായ്ക്കൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ആഹാരം കൊടുക്കാനായിട്ട് ആരും തന്നെ ഇല്ല അവർ ഈ മാലിന്യങ്ങളെ ആശ്രയിച്ച് അങ്ങനെയാണ് അവർ ആ ആഹാരങ്ങൾ കഴിക്കുന്നത് അപ്പം ഇവരിങ്ങനെ ആഹാരം അന്വേഷിച്ച് പോവുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങളിലുള്ള കുപ്പിച്ചില്ലുകളിൽ കുപ്പിച്ചില്ലുകൾ ഉണ്ടാവും അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഇത് ഭക്ഷണം അന്വേഷിച്ച് പോവുന്ന സമയത്ത് ഇവർ ശരീരത്തിൽ കൊണ്ടാൽ അത് വലിയ മുറിവുകളുണ്ടാവും അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോവാനൊന്നും കഴിയില്ലല്ലോ അവർക്ക് സ്വന്തമായിട്ട് ആ മുറിവ് ഉണക്കാനായിട്ട് പറ്റില്ല അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും അത് ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള കുപ്പിച്ചില്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ ചിലരാണെങ്കിൽ കുപ്പിച്ചില്ല് ടൈ ചെയ്തിട്ടിടാറുണ്ട് എന്നാലും ഇങ്ങനെ കുപ്പിച്ചില്ലുകൾ മാലിന്യങ്ങളുടെ കൂടെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല കൂടാതെ തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ആ വസ്തു ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ലയിച്ച് പോവുന്നില്ല മണ്ണിൽ ലയിച്ച് പോവുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ് എന്നിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് വീടുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വരുന്നു അതെല്ലാം കൂടെ കെട്ടി രാത്രി കാലങ്ങളിൽ കൊണ്ട് വന്ന് ജലാശയങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശനം അതല്ലെങ്കിൽ ഒരു പാരിസ്ഥി പാരിസ്ഥിതിക വെല്ലുവിളിയാണ് ഇതെന്ന് പറയുന്നത് കൂടാതെ തന്നെ ഇവിടെയൊരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിലുള്ള അഴുകിയ മീനുകളുടെ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒക്കെ വേസ്റ്റുകൾ മാർക്കറ്റിന് തൊട്ട് പുറകിലുള്ള തോടിലേക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആ വെള്ളത്തിലും ഫുൾ എന്താണ് മിക്സ് ആവുകയാണ് മിശ്രിതം ആവുന്നു അപ്പോൾ ഇപ്പോഴും ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഈ ഒരു തോടിനെയൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് തുണി കഴുകാനും കുളിക്കാനും ഒക്കെ ഇപ്പോഴും കിണറുകളിൽ വെ വെള്ളം ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് പ്രധാനമായിട്ടും വേനൽ കാലങ്ങളിൽ അപ്പോൾ അവർ പ്രധാനമായിട്ടും ഈ ഒരു ജലാശയങ്ങളെ ആശ്രയിച്ചാണ് അതായത് തോടുകളെ ഒക്കെ ആശ്രയിച്ചാണ് അവർക്ക് വസ്ത്രം കഴുകാനും കുളിക്കാനും ഒക്കെ വരുന്നത് അവരിൽ ഈ ഒരു വെ ഈ ഒരു മാലിന്യങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങളുണ്ട് അത് ഈ ഒരു വെള്ളത്തിൽ കലങ്ങുന്ന സമയത്ത് ഇവരും ഇതൊക്കെ ഇ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ടാണ് ബ അവരുടെ ഡെയിലി ക് ഉള്ള അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കഴുകുന്നതും അല്ലെങ്കിൽ കുളിക്കുന്ന ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം പല പല രോഗങ്ങൾ എന്തുചെയ്യാറുണ്ട് ഇ ഇത്തരത്തിലൂടെ അവരുടെ ശരീരത്തിൽ കയറുകയും വരാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് അപ്പം അങ്ങനെയൊരു കാര്യം കൂടെ പ്രധാനമായിട്ടും ഉണ്ട് പിന്നെ പറഞ്ഞതാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയും ഈ ഒരു കുപ്പിച്ചില്ലുകളുടെ ഒക്കെ ഒരു എന്താണ് പറയുന്നത് നിക്ഷേപം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു തോടുകളിൽ തന്നെ ആ ഒരു ആവാസവ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കാനായിട്ട് കഴിയും പ്ലാസ്റ്റിക്കിനെന്ന് പറയുന്നത് അങ്ങനെ പല പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു പാരിസ്ത് അതായത് നമ്മുടെ പാരിസ്ഥിതിക നമ്മുടെ പ്രദേശത്തുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോധവൽകരണ ബോധവൽകരണ റാലികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ നമ്മൾ ബോധവൽകരണ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരുപാട് വ്യക്തികളുണ്ട് അവർ ഈ ജലാശയങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഈ നാ നാട്ടിലുള്ള ജന്തുക്കൾ അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നായ്ക്കൾ പൂച്ചകൾ ഇവർക്കൊക്കെ എന്താണ് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെ വയറ്റിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ബോധവൽകരണ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കൂടാതെ തന്നെ നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളും ഉണ്ട് പോലീസ് ഈ രാത്രി കാലങ്ങളിലാണ് കൂടുതലും ഈ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത് അപ്പം അതിനെ പറ്റി അന്വേഷിക്കാനായിട്ട് പോലീസുകളുണ്ട് കാമറകളുണ്ട് ഇത് നിക്ഷേപിക്കുന്ന പ് പ്രദേശങ്ങളിൽ കാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ കൂടിയും മറ്റ് ചില പ്രദേശങ്ങളിൽ കൊണ്ട് വന്നിട്ട് നിക്ഷേപിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ താരതമ്യേന കുറഞ്ഞ് വരുന്നുണ്ട്